ആയോധന കലയിൽ എനിക്ക് താത്പര്യമുണ്ടായത് എൻ്റെ ചെറുപ്പ കാലങ്ങളിലാണ് ഞാൻ ആയോധന കല പരിശീലിച്ചതും എൻ്റെ ചെറിയ കാലഘട്ടങ്ങളിലായിരുന്നു ഞാൻ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്താണ് ഞാൻ ആയോധന കല പഠിച്ച് തുടങ്ങിയത് ഞാൻ പഠിച്ചിരുന്നത് കുങ്ങ്ഫു എന്ന് പറയുന്ന ആയോധന കലയാണ് അതിനോടെനിക്ക് അടുപ്പം തോന്നാൻ കാരണം ഇന്നത്തെക്കാലത്ത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നമുക്ക് സ്വയം പ്രതികരിക്കാനുള്ള കഴിവും അതേപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഒരപകടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും കൊണ്ട് കൂടിയാണ് എനിക്കിത് തുടരാനും സാധിച്ചത് എനിക്കതിൽ ഗ്രീൻ ബെൽറ്റ് വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആയോധനകല പരിശീലിക്കുന്നതോടൊപ്പം നമുക്ക് സ്വയം ഒരാത്മാവിശ്വാസവും ഒരു ധൈര്യവും നമുക്ക് നേടാൻ കഴിയും ഞാൻ രണ്ട് കൊല്ലം ആയോധന കല അഭ്യസിച്ചിരുന്നു ഇനിയും തുടരാൻ എനിക്ക് താത്പര്യമുണ്ട് ഇനിയും ഒരുപാട് കുട്ടികൾക്ക് പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇത് പോലെയുള്ള ആയോധന കലകൾ പഠിപ്പിക്കാനും എനിക്ക് താത്പര്യമുണ്ട് ഇതിൽ ട്രൈനിങ്ങും കൂടുതലെടുത്തതിനു ശേഷം ഇതിൻ്റെ ഒരു കോച്ചായി ഇതിനു പഠിപ്പിക്കുന്ന ഒരു മാസ്റ്ററായി മാറാനാണ് എൻ്റെ ഒരു വലിയൊരാഗ്രഹം ഇതിൻ്റെ വലിയ വലിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനും എനിക്ക് താത്പര്യമുണ്ട് ആയോധന കല എന്ന് പറയുന്നത് സ്വയം പ്രതിരോധത്തിന് വേണ്ടി നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒന്നു തന്നെയാണ് ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ അക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ആയോധന കലയ്ക്ക് വളരെയേറെ ഏറിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം ഇന്നത്തെക്കാലത്ത് നമ്മൾ വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്കും നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരുപാട് ക്രൈമുകൾ നടന്ന് കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ നിശ്ചലമായി പോകുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് പെൺകുട്ടികളായിക്കോട്ടെ ആൺ കുട്ടികളായിക്കോട്ടെ ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് ധൈര്യം പകരാൻ വേണ്ടി നമുക്ക് ചെറിയ പ്രായത്തിൽ ആയോധന കലകൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കേതൊരു പ്രതികൂല സാഹചര്യത്തിലും എന്തൊരു ഘട്ടത്തിലും ഉപയോഗിക്കാനത് വളരെ സഹായകരമായിരിക്കുന്ന ഒന്നായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം